ഹലോ

ആ അതെ മസാജിങ്ങ് സെൻ്റർ അല്ലേ ആയുർവേദ മസാജ് ആ അതെ ഞാൻ ഒരു ബാംഗ്ലൂർ നിന്ന് വരുന്നത് ഒരാൾ ആണെങ്കിൽ അന്നേരത്തേയ്ക്ക് നമ്മൾക്ക് ഒരു എന്നാണ് എനിക്ക് ഭയങ്കര ബോഡി പെയിനാണ് അപ്പഴത്തേക്ക് നമ്മക്ക് അവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ചികിത്സ അതായത് തിരുമ്മുക അങ്ങനെ ഒക്കെ ഉള്ളത് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആയിരുന്നല്ലോ

ആ ആ ശരി ശരി ശരി എന്നാൽ എത്ര അന്ന് എത്ര ദിവസത്തേക്ക് ഉള്ളതാണ് എത്ര ദിവസത്തേക്കണ് ആ എത്രയും പെട്ടെന്ന് തിരുമ്മിയിട്ട് വീട്ടിൽ പോരണം എന്നാണ് ആഗ്രഹം ആ പിന്നെയും പിന്നെയും ഇവിടെ താമസിക്കാൻ ഉള്ള ഇത് ഇല്ല അന്നേരം റേറ്റ് ഒക്കെ എന്നാ ആവും ഒരു ദിവസം ആണോ ആ അപ്പോ നമ്മുടെ ഒരു ബൈ സ്റ്റാൻഡറ് വേണോ

കിട്ടും ആ ഫ്രീയാ അതൂ കൂടെ കൂട്ടി നാൽപ്പതിനായിരം രൂപ പറയുന്നത് അല്ലേ ആ ആ ശരി ശരി ശരി ശരി ആ ആ അപ്പോൾ ഇത് നമ്മൾക്ക് ഇവിടെ നിന്ന് മരുന്നും കാര്യങ്ങളും എല്ലാം അവിടെ തന്നെ ആണല്ലോ അല്ല ആ ശരി ശരി ശരി ശരി ശരി ആ ഞങ്ങൾ രണ്ട് പേർ രണ്ട് പേർ വരാം ഞങ്ങൾ ടൂറിസ്റ്റുകൾ ആണ് ബാംഗ്ലൂർ നിന്ന് വരുന്നതാണ് അപ്പോൾ ഒരാഴ്ച അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ ഇത് എല്ലാം കഴിഞ്ഞിട്ട് എവിടേലും പോകാമെന്നുള്ള ഇതിൽ ആയിരുന്നു ചോദിച്ചത് ആ ആ ശരി ശരി ശരി

ആ ആ ശരി ശരി ശരി ശരി ശരി ആ ആ അന്നേരം അത് ആ അതിന് ഗുളികയും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ അതിന് ഒരു പെരട്ടാൻ ഉള്ളത് എല്ലാം സംഭവം ഉണ്ടല്ലോ അവിടെ അല്ലേ വേറെ എങ്ങും പോവണ്ട കാര്യ ഇല്ലല്ലോ ആ ആ ആ ശരി ശരി ശരി ശരി ആ എന്നാൽ ആയിക്കോട്ടെ ഞങ്ങൾ വിളിക്കാം വരുമ്പഴത്തേക്ക് വിളിക്കാം എപ്പോഴേക്കാണ് നമ്മൾ അത് ഡേറ്റ് അറിയിക്കാം കേട്ടോ മുൻ കൂട്ടി അറിയിക്കാം ബുക്ക് ചെയ്യണമെങ്കിൽ ആ എന്നാൽ ശരി ശരി ഓക്കെ